ആ മലയാള ഭാഷയ്ക്ക് നമുക്ക് ഒത്തിരി സവിശേഷതകൾ ഉണ്ട് നമുക്കറിയാം നമ്മൾ ഇപ്പം നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ എവിടെപ്പോയാലും നമ്മൾ നമ്മൾ മലയാളം പറയാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വ്യത്യാസങ്ങളുണ്ട് എന്നാലും മലയാളം പൊതുവേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് പഠിച്ചെടുക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് മലയാളം ആ പിന്നെ അതിൻ്റെ സംസാരം കാരണം നമുക്ക് പല വാക്കുളും പല രീതിയിലാണ് നമ്മൾ ഉച്ചാരണം വരുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം എവിടെയാണ് ചോദിക്കും ചിലർ എവിടെയാണ് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലാണ് വരുന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്ന ഭാഷ ആയിരിക്കത്തില്ല നമ്മൾ ആലപ്പുഴക്കാർ പറയുന്നത് കോട്ടയംകാർ പറയുന്നൊരു ഭാഷ വേറെ ആലപ്പുഴക്കാർ പറയുന്ന ഭാഷ വേറെ കൊല്ലംകാർ പറയുന്ന ഭാഷ വേറെ ആ ഭാഷയെന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാം ഒന്നായിരിക്കാം പക്ഷെ അവരുടെ ഉച്ചാരണവും വ്യാകരണവും എല്ലാം തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം